ഹലോ ഹലോ ഇത് കോഴിക്കോടുള്ള ഗൈഡ് അല്ലേ ആ അതെ ഞാൻ അരുണായിരുന്നു അതായത് എൻ്റെ എൻ്റെ ഒരു കസ്സിന് വല്ലാത്തൊരു നെഞ്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്കി ആ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്കി ഇല്ല മാറ്റമൊന്നും ഇല്ല അപ്പം നല്ലൊരു ഹോസ്പിറ്റൽ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവനിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നെഞ്ച് വേദനയും കാര്യങ്ങളൊക്കെ ആണ് എന്താണ് പറയുക തീരെ കുറയുന്നില്ല ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ള അതായതു മെഡിക്കൽ കോളേജിൽ ഒരു രണ്ട് മൂന്ന് വട്ടം കാണിച്ചു വേറെ വേറെ ഡോക്ടറെ മാറി മാറി കാണിച്ചു കുറേ പ്രഫസർമാരെ കാണിച്ചു പക്ഷേ എന്നിട്ടൊന്നും ഒരു കുറവില്ല

പക്ഷേ ഞാനീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്

പക്ഷേ ഞാനീ മെഡിക്കൽ കോളേജിലായിരുന്നു കാണിച്ചത് പക്ഷേ അവിടുത്തെ അവിടെ കാണിച്ചിട്ടവർക്ക് എന്താണ് ഇവന് കുറവില്ല അതാണ് ഞാൻ വേറേതേലും ഹോസ്പിറ്റൽ നോക്കാൻ വേണ്ടി വിചാരിച്ചത് അവിടെ നോക്കിയാൽ മതി അവിടെ കുഴപ്പമൊന്നും ഇല്ല നല്ല നല്ല ഡോക്ടർമാരാണോ ആ ഓ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്നാൽ ഒ ഓക്കെ